ഹലോ ടീച്ചറേ ഗുഡ് മോണിങ് ആ ടീച്ചറെ സ്കൂളിലെന്തൊക്കെയുണ്ട് വിശേഷം പഠനമൊക്കെ എങ്ങനെ പോകുന്നു കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ തയ്യാറെടുക്കുവാൻ ആ എന്താ ഹാഫ് ഇയർലീ എക്സാമാണോ അതോ പിരിയോടിക്കോ നമ്മുടെ ആ അൻപത് മാർക്കിനാണോ ആ പിള്ളേർ ആ ഉണ്ടല്ലേ ആ അവർക്ക് എങ്ങനാണ് ഇപ്പം റിവിഷൻ തുടങ്ങിയോ ക്ലാസിൽ പോഷൻ തീർന്നോ അ ആ ആ ആ ആ ആ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ടീച്ചറെ പിള്ളേരെ

ആ വൈകുന്നേരങ്ങളിലൊക്കെ അവർക്ക് എക്സ്ട്രാ സമയം കൊടുത്ത് എഴുതിപ്പിക്ക്വേം അല്ലയോ ആ എല്ലാ സബ്ജക്റ്റും അവർക്കൊരു സബ്ജക്റ്റല്ലല്ലോ എല്ലാ സബ്ജക്റ്റുവങ്ങനല്ലേ അല്ലേ ബാക്കിൽ ആ ആ അ എഴുതാൻ ആ ക്ലാസ്സ് അ അത്യാവശ്യമുള്ള അ അത് തന്നെ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ നമുക്കവരെ അല്ലാപ്പോഷൻസും പഠിപ്പിച്ചോണ്ട് കൊണ്ടോവാൻ പറ്റത്തില്ലല്ലോ ആ ആ അത് ആ ആ പേരൻസിനതൊരു സന്തോഷമല്ലേ അല്ലേ ആ ആ ഞാനുവിതു പോലെ ടീച്ചറേ ഇപ്പോൾ അവർക്ക് ഒരു ബുക്ക് ഞാൻ കൊണ്ട് വരാം എക്സ്ട്രാ അവർക്കൊരു ബുക്ക് ഞാൻ കൊടുത്തു വിടും അവർക്ക് കൊണ്ട് വരാൻ പറയും എന്നിട്ട് അതിനകത്ത് ഞാൻ അത്യാവശ്യമുള്ള പിറ്റേന്ന് പഠിച്ചോണ്ട് വരാനുള്ള കാര്യങ്ങൾ മാത്രം എഴുതിപ്പിക്കും ഒത്തിരി ഒന്നുമെഴുതിപ്പിക്കത്തില്ല കുറെശ്ശെ മാത്രമൊരു രണ്ടോ സെൻ്റൻസോ എന്നിട്ട് വീട്ടിപ്പോയിങ്കൂടത് ആ എഴുതി പഠിച്ചോണ്ട് വന്നിട്ട് പിറ്റേന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ആ ആ ലാങ്വേജ് ആ മലയാളം ഇങ്ക്ളീഷ് അത് തന്നെ ആ എഴുത്തിലൂടെ നമുക്ക് അവരെ ഇച്ചിരി ഒക്കെയൊന്ന് കൊണ്ട് വരാനേക്കൊണ്ട് കഴിയും ആ പ്രധാനം അതല്ലയോ വായിക്കാൻ ആ അത് തന്നെ ആ ആ കവർ ചെയ്യാനൂടുണ്ട് ഉണ്ട് ആ

ചുരുക്കിക്കൊണ്ട് ആ അവർക്ക് വിശദമായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ പേര് അവരുടെ പാരൻസിനോ അവരുടെ ആ പേരെൻസിനോടത് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൂടെ അ സപ്പോർട്ടുള്ള വീട്ടിൽ ചെന്നിട്ടും കൂടൊന്ന് ശ്രദ്ധിക്കാനേക്കൊണ്ട് ആ ആ ആ നമുക്ക് തന്നെ പഠിപ്പിച്ചെടുക്കാവുന്നതേയുള്ളു അന്ന് ആ ആ പഠിക്കാൻ പറ്റുന്നുണ്ട് ടീച്ചറെ ഇല്ല്യോ നമ്മളിപ്പം കൊടുക്കുമ്പം അവർക്ക് തീരെ അറിയാൻ വയ്യാതില്ല എന്നാൽ പോലും അവരേക്കൊണ്ടാക്കുന്ന രീതീലവർ അവർ വർക്ക് ചെയ്യുന്നുണ്ടില്ല്യോ ആ പിന്നെ ചില കുട്ടികൾ നമ്മൾ പറഞ്ഞാലവർ പിറ്റേ ദിവസോം അഞ്ച് പ്രാവശ്യം എഴുതാൻ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമൊക്കെ എഴുതി കൊണ്ട് വരുന്ന കുട്ടികളുമുണ്ട് വേറെ

പിന്നെ അവർ നമ്മളെ നമുക്കവരെ പ്രമോട്ട് ചെയ്യേണ്ടതല്ലേ നമുക്ക് ഈ പറയുന്ന പോലെ തീരെ അറിയാൻ വയ്യാതില്ല എന്നാലും നമുക്ക് മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെ നമുക്കവരെ മുമ്പോട്ട് കൊണ്ട് വരണം അല്ലേ അ

ഹലോ ആ ടീച്ചറേ ആ അത് തന്നെ നമുക്കൊരുമിച്ച് മുമ്പോട്ട് പോവാം ഓക്കേ ടീച്ചറേ ഒക്കെ ടീച്ചറെ ടാങ്ക് യൂ